ഇന്ത്യയിലെ കാലാവസ്ഥയെ പറ്റി പറയുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ഓരോ കാലാവസ്ഥ രീതികളാണ് നമ്മൾ കണ്ടു വരുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ കഴി കഴിഞ്ഞ മാസം തന്നെ ഗുജറാത്തിലും ജാർഖണ്ഡിലും മധ്യപ്രദേശിലും ബീഹാറിലും ഹരിയാനയിലും എല്ലാം പ്രളയം വന്ന് വെള്ളം കാരണം ഫ്ലെഡ് കാരണം മഴവെള്ള പാച്ചിൽ കാരണം കുറെ പ്രശനം ഉണ്ടായിട്ടുണ്ട് നിരവധി ആൾക്കാർക്ക് മരണപ്പെടുകയും പരിക്ക് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നേരെ മറിച്ച് രാജസ്ഥാൻ ഭാഗങ്ങളിൽ വരുമ്പോൾ കഠിനമായ വെയിലും ചൂടും വെള്ളമില്ലായ്മയും ആണ് കാണുന്നത് നേരെമറിച്ച് കേരളത്തിൽ വരുമ്പോൾ മിതമായ രീതിയിൽ ചൂടും ചില പ്രദേശങ്ങളിൽ അമിതമായ ചൂടും വെള്ളവുമാണ് നാം കാണപ്പെടുന്നത് തമിഴ്നാടിൽ വെള്ളമില്ല എന്നാൽ ചൂട് കൂടുതലാണ് താനും ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലും കാലാവസ്ഥ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും ഓരോ മാസങ്ങളിൽ മൺസൂൺ കാലങ്ങളിലും മഴകാലങ്ങളിലും പിന്നെ വേനൽകാലങ്ങളിലും ഓരോ രീതിയിലാണ് കാണപ്പെടുന്നത് ശെരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മലയാള മാസം വച്ച് നമ്മൾ കാലവർഷം കൊല്ലവർഷം അല്ല കാലവർഷം പിന്നെ പിന്നെയുള്ളത് എന്താ കുംഭമാസം അങ്ങനെ വച്ചിട്ട് ഓരോ വ്യത്യാസം ഉണ്ട് നമ്മൾ കൊല്ലവർഷത്തിൽ മഴ കാണാറുണ്ടാകും അത് കഴിഞ്ഞ് തുലാമിൽ തുലാമാസത്തിൽ വേറെ മഴയും ഇടിയും കാണപ്പെടുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ ഇതൊന്നും കാണാറില്ല വെള്ളം ഇല്ലായ്മയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ കാറ്റുള്ള പ്രദേശങ്ങളുണ്ട് കാറ്റില്ലായ്മയുണ്ട് തണുത്തതുണ്ട് ചൂടുള്ള പ്രദേശവും ഉണ്ട് ഹിമാലയൻ റെയ്ഞ്ചുകളിൽ വരുമ്പോൾ ഭയങ്കര തണുപ്പാണ് ആ തണുപ്പൊന്നും നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും കാണപ്പെടുന്നില്ല അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കാലാവസ്ഥയെ പറ്റി പറയുകയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഓരോ പ്രദേശങ്ങളിലും ഓരോ രീതിയിലാണ് ലോകത്തിൽ വച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലാണ് കൂടുതൽ പച്ചപ്പും കാര്യങ്ങളും കാണുന്നത്